സാങ്കേതിക പ്രൊഫഷണലുകളെയും സംരംഭകരെ ഒക്കെ ഒരുമിപ്പിച്ച് കൊണ്ടുള്ള കേരളത്തിലെ നിക്ഷേപകരെ ഒക്കെ കൊണ്ടുള്ള സാങ്കേതിക പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ അറിയില്ല പക്ഷേ സമ്മേളനങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് ഈ ഈ സമ്മിറ്റ് പോലുള്ളത് ഈ ടെക്നോളജി സമ്മിറ്റ് പിന്നെ ഈ ഇടയ്ക്ക് മനോരമയുടെ റോബേഴ്സോ അങ്ങനെ എന്തോ ഞാൻ പത്രത്തിൽ കണ്ടിരുന്നു അപ്പം അങ്ങനെ ഉള്ള ആ ഇത് കൊണ്ടുവരുമ്പോൾ ദേശീയ തലത്തിലാണെങ്കിലും അന്തർ ദേശീയ തലത്തിൽ വരെ വേറെ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നും ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുണ്ട് കാണാറുണ്ട് കേരളത്തിൽ എത്ര മാത്രം ഇത് വളരുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് എനിക്ക് എന്ന് വെച്ചാൽ ഈ സമ്മേളനങ്ങൾ വരുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല പക്ഷേ കേരളത്തിൽ എന്തായാലും സാങ്കേതിക വിദ്യ വളരുന്നുണ്ട് അത് ഉറപ്പാണ് പിന്നെ ബിസിനസ് മാനേജ്മെൻറ് ബിസിനസ്സും ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ടെക്നോളജി എല്ലായിടത്ത് ഇപ്പം ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ കടകളിലാണെങ്കിൽ നമുക്ക് കാണാം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് കടകളിൽ ഈ പറഞ്ഞ പോലെ സാധനങ്ങളെല്ലാം ബിൽ അടിച്ച് കൊടുക്കുന്നത് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും ബാർകോഡ് സ്കാൻ ചെയ്ത് അങ്ങനെ ഉള്ള ഒരിതായി അപ്പോഴും സാങ്കേതിക വിദ്യയൊക്കെ വളരുന്നുണ്ട് പിന്നെ പ്രൊഫഷണൽ സംരംഭകർ നിക്ഷേപകർ എന്നിവരെ ഒരുമിച്ച് കൊണ്ട് കേരളത്തിൽ വേറെ പരിപാടികൾ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ അറിവിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്